അതെ അതെ

നമ്മുടെ സീ ഫുഡും എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഞണ്ട് ചെമ്മീന് കൊഞ്ച് മത്തി അയില കരിമീന് എല്ലാം കറി വെച്ചതും വറുത്തതും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഞങ്ങള് സ്പെഷ്യലായിട്ട് ഇതെല്ലാ ഐറ്റംസും കൂടെ ഒരു ബക്കറ്റില് ഇതെല്ലാം കൂടെ ഫുഡ് ചെയ്ത് വെച്ചത് ഉണ്ടാവും ആ ആ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലാ ഫുഡും വരും എല്ലാ സീ ഫുഡും എല്ലാം വരുന്നുണ്ട് കക്ക ഇറച്ചി അങ്ങനത്തെ ഒക്കെ വരും അല്ല അതൊരു അത് ഒരു നാല് പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും മാക്സിമം നല്ല രീതിയിൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നാല് പേർക്ക് കഴിക്കാം അല്ല ഇനി കുറച്ചൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാണേൽ ഒര് ആറ് പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാം പിന്നെ അയിൻ്റെ കൂടെ നമ്മള് പൊറോട്ടയും ചപ്പാത്തി ചിക്കൻ അങ്ങനത്തെ ഐറ്റംസും വേറെ വരുന്നുണ്ട് ആ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞിട്ട് നേരിട്ട് ഓഡറ് ചെയ്താലും മതി ആ ഇത് ആ ആ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിൽ മറ്റേ മന്തി കബ്സാ അതൊക്കെ ഉണ്ട് എല്ലാ ഫുഡും ഉണ്ട് ഇവിടെ ആ ചെമ് ഫിഷ് വെ ഫിഷ് ബിരിയാണിയൊക്കെയും വരുന്നുണ്ട് ഫിഷ് ബിരിയാണി വരുന്നുണ്ട് പിന്നെ ഈ പച്ചമീൻ കഴിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ആ അങ്ങനത്തെ ഐറ്റംസും വരുന്നുണ്ട് ഈ ചൈനാ ഫുഡൊക്കെ ചൈനീസ് ഫുഡൊക്കെ കഴിക്കാനുള്ള രീതിയില് ആ എല്ലാം ഉണ്ട് ആ ഗ നൂറ് പേരൊക്കെ ആ അത്രേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ഞങ്ങൾ എന്തായാലും നൽകുന്നതായിരിക്കും മ് ആ ആയിക്കോട്ടെ നിങ്ങള് ബുക്ക് ചെയ്താൽ മതി എന്നായാലും ഇത്രേയും ഓക്കെ ഓക്കെ വാ ആയച്ച് തരാം ആ ഇതില് വാട്സ്ആപ്പ് ഉള്ളതാണോ നമ്പറില് ഓക്കെ അയച്ച് തരാം എല്ലാ കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അയച്ച് തരാം കേട്ടോ ഓക്കെ താങ്ക്യൂ